ഞങ്ങളുടെ നാട്ടില് ഒരു തേനിച്ചയൊക്കെ കുത്തിക്കഴിഞ്ഞാൽ അവിടെ ആദ്യം ആ തേനിച്ചേടെ കൊമ്പുണ്ടൊന്നു നോക്കും ആ കൊമ്പ് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ കൂടെ എന്താ നെയ്യ് ഒഴിക്കും നെയ്യ് ഒഴിച്ച് അത് വട്ടത്തിൽ വട്ടത്തിൽ ഉഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ കൊമ്പുണ്ടെങ്കിൽ ഇളകിപ്പോരും പിന്നെ അതില് കമ്മ്യൂണിസ്ററ് പച്ച തേക്കും കമ്മ്യൂണിസ്റ്റ് പച്ചയ്ക്ക് എന്താ അതിനൊരു ഒരു ആന്റിബിയോട്ടിക് പോലെ അവിടെ എന്തെങ്കിലും കിടാണു ഉണ്ടെങ്കിൽ അത് പോക്കോളും പിന്നെ അവിടെയൊരു നീറ്റലൊക്കെ ഉണ്ടാകും ആ നീറ്റല് മാറാൻ അവിടെ ഐസ് വെക്കും ഐസ് തുണിയിൽ ചുറ്റിയിട്ട് അപ്പോഴേക്ക് അവിടെ വേദന ഒരു ഒരു രണ്ടു ദിവസം ഉണ്ടാകും ഒരു കടച്ചലും വേദനയും ഉണ്ടാകും രണ്ടു ദിവസം അത് സഹിക്കുക അത് സഹിക്കാൻ പറ്റും വല്ലാത്തൊരു വേദനയില്ല എന്നാലും ഒരു വേദന ഉണ്ടാകും വീക്കം ഒക്കെ ഉണ്ടാകും അവിടെയൊക്കെ ഐസ് വെയ്ക്കും പിന്നെ മഞ്ഞൾ പൊടി വെള്ളത്തിൽ കലക്കിട്ട് ആ ഭാഗത്തേക്ക് തേക്കും അവിടെ പുരട്ടി കഴിഞ്ഞാൽ അവിടത്തെ കിടാണു എന്തെങ്കിലും ഉണ്ടങ്കിൽ അത് പൊയ്ക്കൊള്ളും ഏറ്റവും കൂടുതൽ ആ പ്രശ്നം അവിടെ മറ്റേ ഈ തേനിച്ചേടെ കൊമ്പിരുന്നാലാണ് ഈ തേനീച്ച കുത്തുമ്പോൾ ആ കൊമ്പ് ആ ഭാഗത്തു തന്നെ വെച്ചിട്ട് പോകുവല്ലോ ആ കൊമ്പ് പോയിക്കഴിഞ്ഞാൽ കുറെ കുറെയൊക്കഭേദമാകും കൊമ്പ് അവിടെ ഇരുന്നാൽ ശരിയാവില്ല ആ കൊമ്പെടുക്കാൻ അവിടത്തെ ഞാൻ പറഞ്ഞ പോലെത്തന്നെ നെയ്യോ വെണ്ണയോ വെണ്ണ ഉരുക്കിട്ട് കാലിൽ കൂടെ അങ്ങനെ ഉഴിഞ്ഞു കഴിഞ്ഞാൽ ആ കൊമ്പ് അവിടുന്ന് ഇളക്കി പോന്നോളും പിന്നെ അവിടെ ഐസ് വെയ്ക്കുക അങ്ങനെയൊക്കെ തന്നെ ഇതൊക്കെ തന്നെ ഞങ്ങളുടെ ഗ്രാമത്തില് ഉള്ള നാട്ടുവൈദ്യം